ഹലോ ഫ്ലിപ്പ്കാർട്ട് അല്ലെ ഞാൻ അതിനകത്ത് നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ എനിക്ക് എന്താ പറയുക നിങ്ങൾ അത് അയച്ച് തന്ന രീതിയൊന്നും വലിയ സുഖമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഒരു പൊട്ടാത്ത ടൈപ്പ് ഒരു ഇതാണ് എന്താ പറയുക അതിനകത്ത് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് ഇതിനകത്ത് എല്ലാം പൊട്ടിയിട്ടാണ് കിട്ടിയത് കാരണം നിങ്ങൾ അതിനകത്ത് പാക്കിങ് ഒന്നും കറക്റ്റ് ആയിട്ടല്ല നമ്മൾ ഇപ്പോൾ ഒരു ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒരു ഗ്ലാസ്സാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് ബബിളൊക്കെ ബബിൾ ഇത് കവർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം വന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് വന്നത് എനിക്ക് അല്ല എനിക്ക് അത് എന്താ പറയുക എനിക്ക് അത് എന്തായാലും തിരിച്ച് താരാണ്ടിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയത് അതിന് മുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ അടുത്ത് വിലയുണ്ട് കാരണം നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്ന ഒരു പൈസ അല്ലല്ലോ അല്ല നിങ്ങളത് ബബിൾ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള പേക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അയക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പം ഇല്ലായിരുന്നു കാരണം എന്നിട്ടും പൊട്ടുകയാണെങ്കിൽ എനിക്ക് പ്രശ്നം ഇല്ല പക്ഷെ ഇത് നിങ്ങൽ വെറുതെ അതിൻ്റെ ഉള്ളിൽ ഒരു പെട്ടിയിൽ വെച്ചിട്ട് എനിക്ക് തരുവാ ചെയ്തത് ഇപ്പോൾ എന്തായാലും എനിക്ക് അതിൻ്റെ റീഫണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും വേണം ഞാൻ എന്തായാലും റിട്ടേൺ അയക്കാൻ വേണ്ടി പോകാ